ഞാൻ ഏറ്റവും വില കല്പിക്കുന്നത് എൻ്റെ കുടുംബത്തിന് തന്നെയാണ് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ട് അതായത് രണ്ട് മക്കൾ ഉണ്ട് ഒരു മോനും ഒരു മോളുമാണ് മൂത്താൾ ഏഴാം ക്ലാസിലും രണ്ടാമത്തെ ആൾ നാലാം ക്ലാസിലും പഠിക്കുന്നു പിന്നെ ഹസ്ബന്റുണ്ട് ഹസ്ബൻഡ്റ്റും പിന്നെ അതായത് പിന്നെ ഹസ്ബൻഡ്റ്റും പിന്നെ ജോലി ചെയ്യുകയാണ് പിന്നെ ഞങ്ങൾ കല്ല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായി ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട് വലിയ കുഴപ്പം ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടെങ്കിലും അതായത് ഒരു പരിധിയിൽ അതായത് ഒരു രാത്രിയിൽ കൂടുതൽ പോകില്ല അപ്പോൾ ഞങ്ങൾ അത്രയും നല്ല സ്നേഹത്തോടെ ആണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഞങ്ങൾ അതായത് ഞങ്ങൾ നാലു പേർ അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നത് എൻ്റെ മക്കളാണെങ്കിലും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ വില കൽപ്പിക്കുന്നത് കുടുംബത്തിന് തന്നെയാണെന്നേ ഞാൻ പറയുകയുള്ളൂ കാരണമെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അമ്മ പിന്നെ എൻ്റെ അച്ഛൻ ഇന്നതാണ് എൻ്റെ വലിയൊരു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു സമ്പാദ്യം എന്ന് തന്നെ പറയാം ഞാൻ എപ്പോഴും വില കൽപ്പിക്കുന്നത് എൻ്റെ കുടുംബത്തിന് തന്നെയാണ്